ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കല്യാണം പോലെയുള്ള ചടങ്ങുകളിലൊക്കെ വെള്ളം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വച്ച് കഴിഞ്ഞാൽ കിണറുകൾ മറ്റെ കുഴൽക്കിണർ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അത് തിളപ്പിച്ചെടുത്തിട്ടൊക്കെയാണ് നമ്മൾ നോർമലി ഇപ്പോൾ വെള്ളം കൊടുക്കുന്നത് പിന്നെ ഗ്ലാസുകളിലും കാര്യങ്ങളിലും ഒക്കെ ആക്കി ഇപ്പോൾ നോർമലി നമ്മൾ കല്യാണ വീടുകളിൽ വെള്ളത്തിന് പല ആവശ്യങ്ങളാണ് ഇപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നവരുണ്ട് പിന്നെ ഫുഡിൻ്റെ കൂടെ സർവ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ വാട്ടർ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളിപ്പോൾ കല്യാണവീടുകളിലൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നോർമലി നമുക്കിപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഷോപ്പുകളിൽ നിന്ന് സ്ക്വാഷ് പോലെയുള്ള സാനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ ഇതാക്കി കൊടുക്കാറാണ് സാധാരണ പതിവ് പിന്നെ നോർമലി കല്യാണ വീട്ടിലൊക്കെ നമ്മൾ കിണറ്റിൽ നിന്നും അവിടെനിന്നും ഇവിടെനിന്നും ഒക്കെയായിട്ട് കുഴൽക്കിണറിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളങ്ങളൊക്കെയാണ് സൊ നോർമലി ഫുഡിനൊപ്പം ആളുകൾക്ക് സർവ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടും ആളുകൾക്ക് അത് നല്ലൊരു കാര്യമായിട്ടാണ് കാരണം വെള്ളം കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഇതാണ് പിന്നെ ഗ്ലാസുകളിലായിട്ടാണ് നമ്മൾ സർവ് ചെയ്യുക അപ്പോൾ അവർക്ക് ആവശ്യത്തിനു വെള്ളം നമ്മൾ പിന്നെയും പിന്നെയും എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് വാട്ടറിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല